രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറയാൻ പറയേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ പീഡനങ്ങൾ ആണ് ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് മക്കളെ വരെ ഇപ്പോൾ പീഡിപ്പിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ ഉള്ള ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വയസ്സായവർക്കാണെങ്കിലും അല്ലെങ്കിൽ മിഡിൽ ഏജ് ഉള്ളവർക്കാണെങ്കിലും അവർക്ക് വേണ്ട ഒരു കൗൺസിലിംഗ് കൊടുത്താൽ അത് ചിലപ്പോൾ ശരിയായി വരാം അവർക്ക് അത്രയും മെൻ്റലി അവർ ഡൗൺ ആയതു കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ ഇതിലൊക്കെ ഏർപ്പെടുന്നത് അപ്പോൾ കൂടുതൽ സംരക്ഷിക്കേണ്ടത് നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ് കൂടുതൽ സംരക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റ് പൗരന്മാരെ നമ്മൾ എങ്ങനെ സേവ് ചെയ്യണം എന്ന് ചോദിച്ച് പറഞ്ഞാൽ

നടക്കാൻ അവരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു അംഗങ്ങളെ അംഗങ്ങളെ കൊണ്ട് ഈ ഒരു ആളെ നിർത്തിയിട്ട് അവരുടെ ചുറ്റുപാടും എല്ലാം സംസാരിപ്പിക്കുക അല്ലെങ്കിൽ അവരെപ്പോലെ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയാണ് പൗരന്മാരുടേല് കൂടുതൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പിന്നെ ഞമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കുട്ടികളെ തന്നെയാണ് ഒരാൾ മോശമായിട്ട് നോക്കിയാൽ അത് ആ കുട്ടികൾക്ക് അറിയുന്ന രീതിയിൽ വരെ ഞമ്മൾ ഓരോ കുട്ടിയെയും പഠിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞമ്മൾ ഞമ്മളുടെ കുട്ടികളെ സേവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന് ചോദിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ലെവൽ എത്തി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്തുവയസ്സൊക്കെ ആയി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഒരു മനോധൈര്യം അല്ലെങ്കിൽ അവർക്ക് കരാട്ടെ അങ്ങനെയുള്ള ഓരോ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവര് എന്ത് നോക്കിയാ അല്ലെങ്കി നമ്മൾനെ ഒരാൾ സ്പർശിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെ തന്നെ നിർത്താവുന്നതാണ് അങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്